ഞാന് ഉണ്ടാക്കിയ സമ്മാനം പഠിക്കുന്ന സമയത്ത് ഗ്രീറ്റിംഗ് കാര്ഡ് ഞാന് തനിയെ വാങ്ങിച്ച് ചാര്ട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് അതിൽ ഞാന് പടം വരച്ച് ഞാന് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാന് അങ്ങനെയാണ് ഗ്രീറ്റിംഗ് കാര്ഡ് കൊടുക്കാറുണ്ടായിരുന്നത് അപ്പം അതെനിക്ക് തോന്നുന്നു എനിക്കത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു പടം വരയ്ക്കാന് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് പടം ഇങ്ങനെ വരച്ചു വരച്ചു വച്ചിരിക്കും കാര്ഡുകള് എന്നിട്ട് ബര്ത്ത്ഡേ അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് കൊടുക്കും എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ കല അതായത് പടം വരയ്ക്കാന് ഇഷ്ടമാണ് പിന്നെ പെയിന്റിങ്ങ് ഫാബ്രിക് പെയിൻറിംഗ് ഒക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നവരെ എനിക്ക് വളരെ ഇഷ്ടമാണ് അവർ ഇങ്ങനെ സമയം എടുത്ത് കുപ്പിയിലും മണ്പാത്രങ്ങളിലും ഒക്കെ ഇങ്ങനെ വരയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇനി ഗ്ലാസ് പെയിൻറിംഗ് എനിക്ക് ഇഷ്ടമാണ് ഞാന് ഗ്ലാസ് പെയിൻറിംഗ് പഠിച്ചിട്ടുണ്ട് അപ്പം അതിന്റെയുള്ള ഇന്ട്രസ്റ്റിങ്ങ് കൊണ്ട് ഞാന് ഗ്ലാസ് പെയിൻറിംഗ് പഠിച്ച് അങ്ങനെ കുറച്ച് കുറച്ച് ദിവസം അതായിരുന്നു എനിക്ക് കുറേ എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് പെയിന്റ് അത് വരച്ചു ഞാന് രണ്ടു മൂന്ന് പേര്ക്ക് ഞാനത് കൊടുത്തിട്ടുണ്ട് വെറുതെ വെറുതെയെങ്കിലും പടങ്ങൾ ഇങ്ങനെ ഗ്ലാസ്സിൽ വരച്ച് അത് ഞാന് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ ബര്ത്ത്ഡേ വരുമ്പോൾ എന്റെ മക്കള് എനിക്ക് അവരിങ്ങനെ അവർ അവരതിൽ ഒരുപാട് ഡിസൈനൊക്കെ ചെയ്ത് ഉള്ള ഗ്രീറ്റിംഗ് കാര്ഡാണ് എനിക്ക് തരുന്നത് അതിലിപ്പോൾ അവർ പടം വരച്ചിട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലും ഒക്കെ ക്രാഫ്റ്റ് വര്ക്ക് ഒക്കെ ചെയ്ത് ഒട്ടിച്ച് പെറുക്കി ഒക്കെയാണ് അവരെനിക്ക് ഇത് തരുന്നത് അപ്പോൾ എനിക്ക് ആര്ക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ഗ്രീറ്റിങ്ങ്സ് അതായത് നമ്മുടെ കൈകൊണ്ട് ചെയ്ത് ഉള്ള ഗ്രീറ്റിംഗ് കാര്ഡ് ആയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയാലും എന്റെ കൈകൊണ്ടു ചെയ്തു കൊടുക്കാനായിട്ട് എനിക്കിഷ്ടം ആണ് പിന്നെ ഒക്കെ കേക്ക് ബര്ത്ത്ഡേ വരുമ്പോൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കാന് ഇഷ്ടമാണ് അത്രയും പെര്ഫെക്റ്റ് ഒന്നും ആയ അല്ലായെന്നുണ്ടെങ്കിലും അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും പിന്നെ പായസം അതും ഉണ്ടാക്കി കൊടുക്കാന് ഇഷ്ടമാണ് നമ്മുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റിവ്സിൽ ആര്ക്കെങ്കിലും തന്നെ ബര്ത്ത്ഡേ വരുമ്പോൾ പായസം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാന് ഇഷ്ടമാണ് പിന്നെ അതാണ് പടം വരക്കാന് ഇഷ്ടമുള്ളത് കൊണ്ട് ഈ ഗ്രീറ്റിംഗ് കാര്ഡ് ആണ് കൂടുതലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഗ്രീറ്റിംഗ് കാര്ഡിൽ പടം വരച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും പിന്നെ എന്റെ ചേച്ചിമാര്ക്കൊക്കെ ഞാനന്ന് ഗ്രീറ്റിംഗ് കാര്ഡ് സ തനിയെ ഉണ്ടാക്കി തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നതായിരുന്നത് അതിന്റെ കവറും ഞാന് തന്നെ ഉണ്ടാക്കും പേപ്പറിൽ അതിന്റെ കവറും ഉണ്ടാക്കി ആണ് കൊടുക്കുന്നത് ഇപ്പം എന്റെ മക്കൾക്കും അതിഷ്ടമാണ് അവർക്കും അവരുടെ ഫ്രണ്ട്സിനൊക്കെ വരുമ്പോഴും ബര്ത്ത്ഡേ വരുമ്പോൾ ബര്ത്ത്ഡേ വിഷ് ചെയ്ത് അവർ കാര്ഡ് തനിയെ ഉണ്ടാക്കി അതിൽ പടം വരച്ച് എന്തെങ്കിലും ഒക്കെ ക്രാഫ്റ്റ് വര്ക്ക് ചെയ്ത് അവർ കൊടുക്കുകയാണ് ഇഷ്ടം അവര്ക്ക് അതും ഒക്കെ വളരെ ഇന്ട്രസ്ട്ടിങ്ങുള്ള കാര്യമാണ് അത് അപ്പം എനിക്കും അത് ഇഷ്ടമാണ് കാരണം നമ്മൾ കുറച്ച് എഫേര്ട്ട് എടുത്ത് നമ്മൾ കൈയിൽ പൈസ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നമ്മൾ കുറച്ച് നേരം സ്പെന്റ് ചെയ്ത് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനു കുറച്ച് വാല്യൂ കൂടുതലാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം അതായിരിക്കും നമ്മൾ കടയിൽനിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നതിനെക്കാളും നമ്മൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് അവർ അവർ മെനക്കെട്ടിരുന്ന് ഒരു സാധനം ഉണ്ടാക്കി നമുക്ക് കൊണ്ടുത്തരുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം അതിനോടാണ് എനിക്ക് താല്പര്യം ഞാനങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കിട്ടാനാണ് എനിക്കും ഇഷ്ടം